വെല്ലുവിളി നിറഞ്ഞതും പ്രതിഫല ദായകവുമായ ഒരു വസ്ത്രം നെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് വസ്ത്രങ്ങളെല്ലാം തന്നെ പല തരത്തിലുള്ള നൂല് കൊണ്ട് നൂൽക്കുന്ന ഒന്നാണ് അത്പോലെ തന്നെ ഈ വസ്ത്രങ്ങളില്ലെല്ലാം നൂൽക്കുന്ന നൂലുകളുടെ വിലയും ക്വാളിറ്റിയും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു വില അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങളും അല്ല പിന്നെ നിർണ്ണായകമാണ് അത്പോലെ തന്നെ പിന്നെ വെല്ലു പിന്നെ അത്പോലെ തന്നെ ഒന്ന് വളരെ ബുദ്ധിമുട്ടായി ഒന്നാണ് ഇത് നെയ്തവരുടെ ഡിസൈൻ രൂപകൽപ്പന ചെയ്യുന്നത് തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടായ ഒന്നാണ് ഇതിന്റെ രൂപകൽപ്പന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക വളരെ ബുദ്ധിമുട്ട് പരമായ ഒന്നാണ് പിന്നിതിൻ്റെ മൂല്യം അനുസരിച്ച് അതിൻ്റെ ഓരോ നൂലുകളുടെയും വില അനുസരിച്ചാണ് ഇത് നെയ്യുക തന്നെ ചെയ്യുന്ന അത് തന്നെ വളരെ വെല്ലുവിളിയായ ഒന്നാണ് അപ്പോൾ അതിൻ്റെതായ ആ ഒരു വെല്ലുവിളി ഏറ്റുകൊണ്ട് വേണം നമ്മൾ ആ ഒരു പിന്നെ ജോലിയിൽ ഏർപ്പെടുവാൻ തന്നെ ആ ഇത്പോലെ തന്നെ പണ്ട് നമ്മളിങ്ങനെ ഒരു ഓ പ്രതിഫല ദായകമായ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്നു അതെന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളതുമായിരിക്കണം എന്നാൽ മിതമായ നിരക്കിലും ആയിരിക്കണം എന്നാൽ വളരെ ക്വാളിറ്റി ഉള്ളതുമായ ഒരു പ്രോ സാധനം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത്കൊണ്ട് തന്നെ നമ്മൾ ആ ജീവിതം തെരഞ്ഞെടുക്കുന്നതിൽ വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒന്നായ ഒന്ന് ഒന്നാണ് അപ്പം നമ്മൾ നല്ലത് പോലെ ആലോചിച്ച് പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന നല്ല ഒരു ഓ വർക്ക് നമ്മളിലെപ്പോഴും നമ്മളിലെപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടും പിന്നെ പിന്നേന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്തിന് അനുസരിച്ച് ദിവസങ്ങൾക്ക് അനുസരിച്ച് ഓരോ ജോലി ചെയ്ത് ഓരോ തുന്നൽ പ്രവർത്തിയിലേർപ്പെട്ട് അതെത്ര മാത്രം ഭംഗിയാക്കി തീർന്നോ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്കും കിട്ടിയിരിക്കണം അത് നമുക്ക് എന്നും ഒരു ഒരു അവാർഡിന് തുല്യമായിരിക്കണം അതായത് ഒരു പ്രശംസ കൊണ്ടോ അല്ലെങ്കിലൊരു പിന്നെ ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ പൈസയുടെ മുഖേനയോ അല്ലെങ്കിൽ ഒരു സമ്മാനം മുഖേനയോ നമുക്ക് കിട്ടുമ്പോഴതിൻ്റെ ഒരു ആത്മ സംതൃപ്തി വളരെ വലുതാണ് അത്പോലെയാണ് അത് നമ്മളത് ആ ഒരു ജോലിയിലേർപ്പെടുമ്പോൾ നമ്മൾ കാണിക്കുന്ന മനസ്സും ഒക്കെ അപ്പം അതിൻ്റെ ഭംഗിയിലും കളറിലും വൈവിധ്യത്തിലും രൂപകൽപ്പന ചെയ്യുന്നതിലും എല്ലാമാണ് ഇതിനകത്ത് പിന്നെ ബുദ്ധിമുട്ടേറുന്ന വളരെ ഏറിയ ഭാഗം അതുപോലെ തന്നെ നല്ല സാധനങ്ങൾ കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെതായ വില നമുക്ക് കിട്ടിയിരിക്കണം നല്ല സാധനം നല്ല ക്വാളിറ്റിക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യണം അപ്പം നല്ല ഉൽപ്പന്നങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നല്ല നിർമ്മിത വസ്തുക്കൾ നമ്മൾ സംഘടിപ്പിച്ച് അതിൽ നിന്നും വേണം ഇത് ചെയ്തെടുക്കുക അപ്പം അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു സാരി നിർമ്മാണം തന്നെ ഒരു സാരിയിൽ നമ്മൾ എല്ലാവരും എന്തുവാണ് ഒരു ഡിസൈൻ നോക്കും പാറ്റേൺ നോക്കും സ്ട്ര അതിൻ്റെ ഒരു പിന്നെ തുണീടെ ഒരു മേന്മയും നോക്കും അപ്പം ഫസ്റ്റിലെ നമ്മൾ നോക്കും ആ തുണീടെ ഒരു മേന്മയാണ് എത്രമാത്രം മൃദുലമായ തുണിയിലത് ചെയ്ത് അതിനെ വളരെ പിന്നെ നല്ല നിറത്തിൽ ചെയ്ത് വൈവിധ്യമാർന്ന വൈവിധ്യമാർന്ന മനുഷ്യ മനുഷ്യരെ അതായത് സ്ത്രീ ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലതിനെ രൂപകൽപ്പന ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ആത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മ സംതൃപ്തിയും ഒരു വിജയോം ഉണ്ടാകുന്ന അതിൻ്റെ ഫലമായി നമുക്ക് നല്ലൊരു പ്രതിഫലം പ്രതിഫലനം പ്രതിഫലം അതായത് നല്ലൊരു അവാർഡിന് തുല്യമായ അല്ലെങ്കിൽ നല്ല ഒരു ആശംസ പ്രശംസ എന്നത് പോലെയൊക്കെ കിട്ടും അതിനുപരി നമുക്ക് ആ ചെയ്തതിൻ്റെ കൂലി ആയി നല്ല ഒരു തുകയും നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ മനസ്സ് സംതൃപ്തിപ്പെടുന്നത് അതായത് സംതൃപ്തി അടയുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ആത്മാർഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് നല്ലത് പോലെ വെല്ലുവിളി ഏറ്റെടുത്ത് ആ ജോലി പൂർത്തീകരിച്ച് നല്ല ഒരു മേന്മയിൽ നമുക്കത് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വസ്ത്രം നെയ്യുകയോ തുന്നുകയോ ചെയ്ത് ചെയ്യും ചെയ്ത പ്രവർത്തിയിൽ നമ്മൾ ആത്മസംതൃപ്തി അടയുന്നത് അങ്ങനെയാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ സാധനങ്ങൾ അതായത് അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ എവിടെ നിന്ന് ശേഖരിക്കും എന്നും എവിടെ നിന്ന് എങ്ങനെ ശേഖരിക്കും എന്നുള്ളതാണ് പിന്നാണ് രൂപകൽപ്പന ചെയ്യേണ്ടി വരുന്നത് ഒന്ന് അപ്പം നമ്മൾ ഈ സാധനങ്ങൾ നല്ല ഗുണമേന്മയുള്ള സാനങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് നമുക്ക് ബുദ്ധിമുട്ടേറിയ സാധനം ഗുണമേന്മ അത് കിട്ടികഴിഞ്ഞാൽ നമുക്കത് രൂപകൽപ്പന ചെയ്ത് നമ്മുടെ ആയി പിന്നെ ആശയത്തിനനുസരിച്ച് അത് രൂപകൽപ്പന ചെയ്ത് കൊടുക്കാം എന്നതെ ഉള്ളു